ഞാൻ നടത്തുന്നത് കോഴി ബിസിനസാണ് ബിസിനസിൽ എന്നെ സഹായിക്കാൻ മൂന്ന് സഹായികളും കൂടിയുണ്ട് കോഴികളെ രാവിലെ തന്നെ ക്ലീൻ കോഴികളുടെ സ്ഥലം വൃത്തിയായി ക്ലീൻ ചെയ്ത് അതിനാവശ്യമായ തീറ്റയും കൊടുത്ത് അതിനെ സംരക്ഷിക്കുവാൻ മൂന്ന് സഹായികൾ എന്നെ സഹായിക്കുന്നുണ്ട് അവരെ എല്ലാ സമയവും കൃത്യമായി അവിടത്തന്നെയുണ്ടാവും അതിനെ നോക്കുകയും അതിനെ കൃത്യമായ അതിനാവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം നൽകി അതിനെ സംരക്ഷിക്കുന്നു പിന്നെ അതിൻ്റെ കൃത്യതയോടെ അതിൻ്റെ മുട്ടയെടുക്കുന്നു അപ്പോൾ പൂവൻ കോഴിയുമുണ്ട് പിട കോഴികളുമുണ്ട് പിട കോഴികളും മുട്ട രാവിലെ തന്നെ കൃത്യ സമയത്ത് ഇടുന്നു ആ മുട്ട നമ്മൾ ആ സമയം തന്നെയെടുക്കുന്നു അത് കഴിഞ്ഞ് അതിന് ആവശ്യമായതെല്ലാം കൊടുക്കുന്നുണ്ട് അതിന് യാധൊരു വിധ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾ അതിനെ പരിപാലിക്കുന്നു അവർ കൃത്യതയോടുകൂടി എല്ലാ ജോലിയേയും സഹായിക്കുന്നു മുട്ട ഒരു ദിവസം നല്ല വരുമാനം മാർഗമാണ് മുട്ട ഏറ്റവും കൂടുതൽ കിട്ടുന്നുവും ഉണ്ട് എല്ലാ മൃഗങ്ങൾക്ക് അല്ല എല്ലാ കോഴികൾക്കും ആവശ്യമായ എല്ലാ സംരക്ഷണവും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കാരണം അതിനസുഖങ്ങളൊന്നും വരാറില്ല വന്നാൽ തന്നെയും നമ്മൾ തക്ക സമയത്ത് അതിന് വേണ്ട ചികിത്സ നൽകുന്നു അതിനെ നോക്കി പരിപാലിച്ചു കൊണ്ടുപോകുന്നു നല്ല ആദായമുള്ള ഒരു ഒരു ഇതാണ് കോഴി വളർത്തൽ കോഴി അതു മാത്രവല്ല നമ്മുടെ സമയം നമുക്ക് നമുക്ക് വിലയേറിയ നമ്മളെ സമയം വെറുതെ വെറുതെ ചിലവഴിച്ച് കളയാൻ കളയേണ്ടതില്ല അത് അതിന് നോക്കി ക്കഴിഞ്ഞാൽ അതിന്നൊരാദായവും കിട്ടുന്നുണ്ട് നമ്മളുടെ സമയത്തിനും നമുക്ക് വെറുതെയിരുന്ന് സമയം കളയുകയും വേണ്ട ധാരാളം സമയം വെറുതേ പോവുമ്പം നമുക്ക് അതിൽ നിന്നൊന്നും തന്നെ കിട്ടുന്നില്ലല്ലോ അത് കോഴി വളർത്തലാണെങ്കിൽ നല്ല ബിസിനസാണ് അത് എപ്പോഴും നമ്മളതിൽ ശ്രദ്ധ വേണം നമ്മളൊന്ന് ശ്രദ്ധ മാറിയാൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെയുണ്ടാവും അത് കാരണം എപ്പോഴും അതിൻ്റെ കൂടെത്തന്നെ നമ്മളുണ്ടാവും ഞാൻ മാത്രമല്ല കൂടെ കൂടെ പ്രവർത്തിക്കുന്ന സഹായികൾ എപ്പോഴും അതിനെ നോക്കും നോക്കി പരിപാലിക്കും അതുകൊണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നു ഇത്രയും കോഴി വളർത്തൽ നല്ല ആദായമുള്ള കാര്യമായതോണ്ട് എത്രയും കോഴികളെ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് സഹായം സ്ഥലവും വളരെ കുറച്ച് മതി അതിനെ നല്ല പോലെ ക്ലീൻ ചെയ്ത് വീ കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്തിനുള്ളിൽ തന്നെ ഒത്തിരി കോഴികളെ വളർത്താവുന്നതാണ് കോഴികൾ എല്ലാം നല്ല രീതിയിൽ മുട്ട തരുന്നുവുമുണ്ട് അതിന് നൽകുന്ന ഭക്ഷണത്തെയനുസരിച്ച് ആ നല്ല രീതിയിലുള്ള മുട്ടകൾ നമുക്ക് കിട്ടുന്നുണ്ട്